ആ ഇത് ഡയാന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയല്ലേ ഞാൻ നന്ദന മങ്ങാട്ടരയിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് വെഡ്ഡിംഗ് ഫംഗ്ഷനാണ് ജൂണിലാണ് ഫംഗ്ഷൻ അപ്പോൾ അയിൻ്റെ തീം തീം തീം വർക്കാണ് ചെയ്യേണ്ടത് ഡെക്കറേഷൻസെല്ലാം ആ കളർ ബേസാണ് തീം പർപ്പിളാണ് കളറ് ആ പിന്നെ അതിന് വെക്കേണ്ട ഡെക്കറേഷന് വെക്കേണ്ട ഫ്ലവേഴ്സെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സായിരിക്കണം അപ്പോൾ നിങ്ങൾക്കതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റോ

ആ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ഫുഡ്ഡ് ഹാള് എല്ലാം നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യില്ലേ കാരണം ഞങ്ങൾക്കിവിടെ ഇതെല്ലാം ചെയ്യാനുള്ള ടൈമില്ല സോ സോ അതെല്ലാം നിങ്ങളെ മൊത്തായിട്ടേൽപ്പിക്കാനാണ് പ്ലാൻ ആ അതെ ഞങ്ങൾക്ക് നോൺവെജ് വേണം ഓക്കെ ഓക്കെ അപ്പോൾ ഒരാൾക്കൊക്കെ എത്രയായിരിക്കും ഒരു പ്ലേറ്റ് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചതാണ് അതാരതാണ് ആ താങ്ക് യൂ ഓക്കെ ആ ആ

ഇവിടെ മങ്ങാട്ടുകാര മങ്ങാട്ടുകരേ തന്നൊരു എൻ എസ് എസ് ഹോളുണ്ട് ആ മതി മതി ബ്രൈഡ് ബ്രൈഡ് ആ വേണം എല്ലാം അറേഞ്ച് ചെയ്തോളൂ കാരണം ഞങ്ങൾക്ക് വേറൊന്നിനും ടെൻഷനടിക്കണ്ട കാര്യം ഇല്ലല്ലോ ആ വിസിറ്റ് ചെയ്യാം ആ താങ്ക് യൂ